ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആണോ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഒരാഴ്ച്ചയാണോ ക നിങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നോ കുറവില്ലേ ജലദോഷം ഉണ്ടായിരുന്നോ ആ ആ ആവി പിടിക്കാറുണ്ടായിരുന്നോ ആ എന്നിട്ടും കുറവില്ലേ ഉം നന്നായിട്ട് ആവി പിടിച്ചോ ആവി പിടിച്ചാൽ ഇപ്പോൾ ജലദോഷം ഒക്കെ മാറുള്ളൂ ചുമ ഉണ്ടോ

തലവേദനയാണോ പ്രഷറോ അങ്ങനെ വല്ലതും എന്താണ് വേരിയേഷൻ വരുത്തുന്നുണ്ടോ പ്രഷറിനൊക്കെ ഇല്ലേ നോർമൽ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നോ ആ ആ ഇപ്പം കയ്യിൽ ടാബ്ലറ്റ് ബാക്കിയുണ്ടോ അതോ എല്ലാം കഴിച്ചോ ആ എന്നാൽ അത് കഴിക്കുക എന്നിട്ട് ഒന്നുകൂടെ നോക്ക് നിങ്ങൾ ഒരു ഒരു ഇതാണ് പിന്നെ അഞ്ച് ദിവസം എഴുതി തന്നാൽ അഞ്ച് ദിവസം തന്നെ കഴിക്കണം എന്നിട്ടേ പിന്നെ ഒന്നുകൂടെ കാണിക്കേണ്ടൂ അപ്പോൾ അതൊന്ന് ആ അതൊന്ന് കഴിക്കണം പിന്നെ ജലദോഷത്തിൻ്റെ ഒക്കെ ഗുളിക ഇല്ലേ കയ്യിലില്ലേ ആ അതിപ്പോൾ ഇപ്പം കാണിച്ചിട്ട് എത്ര ദിവസമായി നാല് ദിവസമാണോ ആ അപ്പം എത്ര ദിവസത്തേക്കുള്ള ഗുളികയാണ് തന്നത് ആ ആ അപ്പോൾ പനിയായതുകൊണ്ട് നിങ്ങള് അഞ്ച് ദിവസം അല്ല ഒരാഴ്ച തന്നെ കഴിക്ക് എന്നിട്ട് കുറവില്ലെങ്കിൽ ഒന്നുകൂടെ വന്നാൽ മതി അതുതന്നെ കഴിക്കണം പിന്നെ അതുപോലെ പാരസെറ്റാമോൾ അല്ലേ കയ്യിൽ ഉള്ളത് ആ അതുതന്നെ കഴിക്ക് പിന്നെ നന്നായിട്ട് ആവി പിന്നെ റസ്റ്റ് എടുക്കണം നന്നായിട്ട് റസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഇതിന് മേലും കയ്യൊക്കെ വേദന ഇതൊരു വൈറൽ ഫീവർ ഇപ്പോൾ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് രണ്ടാഴ്ച്ച രണ്ടാഴ്ച്ച വരെ ഉണ്ട് അതൊന്ന് വിട്ടുമാറണമെങ്കിൽ രണ്ടാഴ്ച്ചയൊക്കെ കഴിയും അപ്പോൾ അതിൻ്റെ ക്ഷീണം ഒക്കെ ഉണ്ടാവും നന്നായിട്ട് ഫുഡും കഴിക്കണം റെസ്റ്റും എടുക്കണം പിന്നെ അതുപോലെ നന്നായിട്ട് ആവിയും പിടിക്ക് അത് കുറഞ്ഞോളും കുറവില്ലെങ്കിൽ വന്നാൽ മതി പിന്നെ വേ ആ പിന്നെ ചുമയൊന്നും ഇല്ലല്ലോ ആ എന്നാൽ പിന്നെ പ്രശ്നം ആക്കേണ്ട ചുമയുണ്ടെങ്കിൽ വന്നാൽ മതി പിന്നെ തൊണ്ടവേദന എങ്ങാനും ഉണ്ടോ ആ അത് വൈറൽ ഫീവർ ആയതുകൊണ്ടാണ് നിങ്ങൾ നല്ലവണ്ണം ആവി പിടിക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലവണ്ണം ചൂട് കൊണ്ടാൽ ചിലപ്പോൾ അതങ്ങ് മാറിക്കോളും നിങ്ങൾ ആ തന്ന ഗുളിക ഫുൾ മ ഫുൾ കുടിച്ചിട്ട് വന്നാൽ മതി അല്ലാണ്ട് പിന്നെയും കാണിക്കേണ്ടല്ലോ മാറ്റം ഇല്ലെങ്കിൽ വന്നോ ഒരാഴ്ച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇതിപ്പോൾ ഈ വൈറൽ ഫീവർ ആയതുകൊണ്ട് പിന്നെ കൂടുകയും കുറയുകയും അങ്ങനെ കളിക്കും പനിയായതുകൊണ്ട് കൂടുകയും കുറയുകയും മരുന്ന് കുടിച്ചിട്ട് കുറയും പിന്നെയും കൂടും അത് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ വന്നിട്ട് അങ്ങനെ വെറുതെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ടല്ലോ അത് കുടിച്ച് കുറവില്ലെങ്കിൽ വന്നാൽ മതി വരുമ്പോൾ ബുക്ക് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് കാണിച്ചിട്ട് പോവാം ഈ നമ്പറിൽ തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി കുറവില്ലെങ്കിൽ ഇനിയിപ്പോൾ ആ കുറയുമോ എന്ന് നോക്കിനോക്ക് അതുതന്നെ നന്നായിട്ട് ആവി പിടിച്ചാൽ മതി റെസ്റ്റ് എടുക്കണം മ് എന്നാൽ ഓക്കെ